ആ ഹലോ കാനറാ ബാങ്കായിരുന്നു ആരായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ടാണോ എത്ര പവനുണ്ടായിരുന്നു ഗ്രാമിന് നമുക്ക് പവനനുസരിച്ചാണ് വരുന്നത് പവന് മുപ്പത്തേഴേ ഇരുന്നൂറ് ആ അതെ മുപ്പത്തേഴേ ഇരുന്നൂറ് മാക്സിമം ഒരൂ രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ചെയ്തു തരാം മൂന്നാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാൽ ആണോ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇതുണ്ടോ നിങ്ങൾക്ക് നികുതി ചീട്ടോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ സ്ഥലം നിങ്ങളുടെ പേരിൽ ആ അങ്ങനെ ആണെങ്കിൽ ഉമ്മയും കൂടി ഒന്ന് വരേണ്ടി വരും കാരണം കുറേ ഒപ്പിടാനുണ്ട് നമ്മുടെ ഒരു സ്കീമാണ് അതായത് കാർഷിക വായ്പയെന്ന് പറയും നമ്മൾ ഗോൾഡ് വച്ചിട്ട് കാർഷിക വായ്പ വായ്പയായിട്ട് എടുക്കുന്നതാണ് ഇപ്പോൾ ഉമ്മയിനേയും കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ഗോൾഡുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു തരാൻ പറ്റും എമൗണ്ട് വേണം അല്ലെ അപ്പം സ്ഥലത്തിൻ്റെ നികുതി ചീട്ടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കിട്ടും ആഹാ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിരിക്കും കാരണമെന്താ വച്ചാൽ നാല് ശതമാനമേ പലിശ ഉണ്ടാവുള്ളു മറ്റേതാവുമ്പോൾ ഗോൾഡ് തന്നെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം പലിശ വരും അപ്പോൾ ആധാർ കാർഡ് ആ ആധാർ കാർഡ് വേണം പിന്നെ പാൻ കാർഡ് വേണം പിന്നെ ഫോട്ടോ ഒരു നാല് ഫോട്ടോയും വേണം ആ പിന്നേ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് ആ പെട്ടെന്നുതന്നെ കിട്ടും ഒരൂ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ അതൊന്ന് പ്രൊസീജ്യറ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ് അത് കഴിഞ്ഞു കഴഞ്ഞാൽ ആ എന്തായാലും ആക്കിത്തരാം അത് സ്പോട്ടിൽത്തന്നെ നമ്മൾ ക്യാഷ് വിഡ്രൊ ചെയ്യാൻ പറ്റും ആ പിന്നേ ആ നാളെ നാളെ രാവിലെ ഒരൂ പത്ത് മണിയാവുമ്പോൾ പോന്നോളു ഓക്കെ ആ ആ ഉമ്മയിനേയും കൂടെ കൂട്ടിയിട്ട് പോര് ഓക്കെ ഓക്കെ